ഇരുപത്തി നാല് മണിക്കൂറൊന്നും കറണ്ടെന്തായാലും ലഭിക്കുന്നില്ല ഇടയ്ക്ക് കറണ്ട് പോകും വരും ചിലപ്പോൾ ഒരു മണിക്കൂർ പോകും പിന്നെ രണ്ട് മണിക്കൂർ പോകും അതൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇരുപത്തി നാല് മണിക്കൂറെന്തായാലും കറണ്ടൊന്നും കിട്ടുന്നില്ല പിന്നെ മഴവരുമ്പോഴേക്കും കറണ്ട് ഉണ്ടാവില്ല അവരെ വിളിച്ച് വിളിച്ച് മടുക്കുകയല്ലാതെ പിന്നെ അങ്ങനെയൊക്കെയാണ് ഒരു ഇടിവെട്ടിയാലോ ഒരു മഴ പെയ്താലോ ഒന്നുമില്ല പിന്നെ ആ സമയത്ത് നമുക്ക് മൊബൈലൊന്നു ചാർജിന് വയ്ക്കാനോ ഈ ഒരു കരണ്ടില്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇരുപത്തി നാല് മണിക്കൂർ എന്തായാലും കിട്ടുകയൊന്നുമില്ല അങ്ങനെയാണ് പിന്നെ കറണ്ട് പോയ സമയത്താണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനാണെങ്കിലോ അങ്ങനത്തെ കാര്യത്തിനോ പിന്നെ അടുക്കളയിലുള്ള ജോലിയും മറ്റും കാര്യങ്ങൾ അങ്ങനത്തതിനൊന്നും എന്തായാലും കറണ്ട് കിട്ടില്ല അത് മഴയും ഇടിയും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉള്ളതും കൂടി ആണെങ്കിൽ തീരെയും കറണ്ട് പിന്നെ അന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട വീട്ടിൽ